ഹലോ ഞാൻ ഏഞ്ചലയാണ് ഇത് റിയ ട്രാവൽ ഏജൻസിയല്ലേ ആക്ച്വലി ഞാൻ വിളിച്ചത് എൻ്റെ വീട് ചാലാപ്പള്ളീന്നു പറയും എഴുമ പത്തനംതിട്ട ജില്ലയാണ് അപ്പം ഞങ്ങള് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് വേളാങ്കണ്ണിക്ക് ഈ വരുന്ന ഓഗസ്റ്റ് തേർട്ടീൻത്തിന് അപ്പം നിങ്ങള് ഫ്രീയാണെങ്കില് ലൊക്കേഷൻ എന്ന് പറയുന്നത് മല്ലപ്പള്ളി എഴുമറ്റൂർ ചാലാപ്പള്ളി മേത്താനാണ് ഞാന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ നമ്പറില് എൻ്റെ ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങള് അവൈലബിളായിരിക്കുമോ എങ്ങനാന്ന് എന്നെയൊന്ന് ഇൻ ഒന്ന് ഇൻഫോം ചെയ്യണം ഞങ്ങൾക്ക് രാവിലെ പോയിട്ട് ഒരു മൂന്ന് നാല് ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് ഒരു എറൗണ്ട് ഒരു ഇരുപത് പേരുണ്ടാവും അപ്പം എങ്ങനെ ആണെന്ന് വെച്ചാല് നിങ്ങളുടെ കൺസൾട്ടൻസി എങ്ങനെയാണ് അതിൻ്റെ എമൗണ്ട് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒന്ന് പറയുക